ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗവ് നമ്മടെ ഗ്ലാസ് ടോപ്പിൻ്റെ ത്രീ മൂന്ന് ബെർണർസുള്ള സ്റ്റൗവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മൂന്ന് ബെർണർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് കുക്കിങ്ങക്കെ പെട്ടന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഒരേ സമയം തന്നെ മൂന്ന് സ്റ്റൗ മൂന്ന് ബെർണർ ഉള്ളത് കൊണ്ട് മൂന്ന് സംഭവം മൂന്ന് ഐറ്റംസ് ഒരേ സമയം തന്നക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പും ഗ്ലാസ് ടോപ്പായത് കൊണ്ട് ക്ലീനിങ്ങിനും ഒക്കെ എളുപ്പമാണ് പെട്ടന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ കാണാനും ഒരു വൃത്തി തോന്നും അതുകൊണ്ട് എനിക്കത് വളരെ ഉപകാരം നല്ലതായിട്ടാണ് തോന്നുന്നരു പോസിറ്റീവായിട്ട് തന്നെ ഞാനത് കാണുന്നത് പിന്നെ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും മൂന്ന് ബെർണറിൻ്റെ സ്റ്റൗവായത് കൊണ്ട് സമയമൊത്തിരി നമുക്ക് ലാഭിക്കാൻ പറ്റും നമുക്കിപ്പം വേറെ അത്യാവശ്യമായിട്ട് പോവേണ്ട എവിടെങ്കിലുമൊക്കെ പോകേണ്ട കാര്യങ്ങളക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളക്കെ ചെയ്തിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിട്ട് അപ്പം അതൊക്കെ നമുക്ക് ഒരേ സമയത്ത് തന്നെ മൂന്ന് ഐറ്റംസ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെയുള്ള ഗ്യാസ് സ്റ്റൗവ് അത് നല്ലൊരു നല്ലൊരു ഉല്പന്നമാണ് അതിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ കാണുകയാണ് പിന്നെ അതുകൊണ്ട് ബാക്കി നമുക്ക് അത് അതനുസരിച്ച് ഇത് കുക്കിങ്ങിൻ്റെ കാര്യം വേഗം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ട് പോകാൻ പറ്റും അത്കൊണ്ട് ഞാൻ എനിക്കൊരു ഒരു നല്ല ഒരു ഉല്പന്നമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്